പത്തിനെട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ടേ എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്